ഹലോ ഞാൻ നിങ്ങൾ

ഞാൻ വിളിച്ചത് എനിക്ക് കുറച്ച് മീൻ വേണമായിരുന്നു അത് ഞണ്ടും ആ ഞണ്ട് ഞണ്ട് ഉണ്ടോ

ആ കൊഞ്ചാണെങ്കിലോ കൊഞ്ചാണെങ്കിലോ ഇതിൽ ആ എല്ലാം വില കുറവ് ഇല്ലേ എന്നാൽ ഒരു ഉദ്ദേശം

ആ കൊഞ്ചുതന്നെ ഇപ്പോൾ തൽക്കാലം കൊഞ്ചും ഞണ്ടും മതി വേറെ എന്തൊക്കെ ഉണ്ട് ആ ആ ആ

ആ ആ പക്ഷെ ഇപ്പം തൽക്കാലം എനിക്ക് അത് വേണം എന്ന് താൽപ്പര്യം ഇല്ല പക്ഷെ എനിക്ക് ഇപ്പോൾ തൽക്കാലം പിന്നെ ഞണ്ടും കൊഞ്ചും മതി ഇനി ഇനി ഞാൻ വരുമ്പോഴത്തേക്ക് ആ ആ മീൻ വാങ്ങിക്കാം കണവ എത്ര ആ ആ

ആ ആ ആ

ആ ആ ആ ആ ഉം ആ ആ ആ എനിക്ക് വേണമായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് തൽക്കാലം ഇനി ഈ ഞണ്ടും കൊഞ്ചും മാത്രം മതി ഞാൻ ഇനി വരുമ്പോഴത്തേക്ക് ഇതൊക്കെ വാങ്ങിച്ചുകൊളളാം ഈ കരുവാടൊക്കെ ഉണക്കണത് അവിടെ തന്നെ ആണോ

ആ ആ ആ ആ ആ ഓ ഈ മീൻ ഈ മീൻ എനിക്ക് രണ്ട് കിലോ വീതം വേണമായിരുന്നു ആ ആ ആ ആ പക്ഷെ ആ ആ രണ്ടും പ്രത്യേകിച്ച് പാക്ക് ചെയ്യണം പിന്നെ വിലയിൽ മാറ്റം വരുത്തണം ഇത് ഒരുപാട് വില ആയിപ്പോയി ആ ഐസ് ഇട്ട മീൻ അല്ലല്ലോ ഐസ് ഇട്ടിട്ട് ഇല്ല ആ

ഉം ആ ആ ആ ആ ആ ശരി ശരി ഞാൻ വരാം ആ കരുവാട് ഒക്കെ ഇനി വരുമ്പോഴത്തേക്ക് വാങ്ങിക്കാം കരുവാടും മറ്റുള്ള മീനുകളൊക്കെ ഇനി വരുമ്പോഴത്തേക്ക് വാങ്ങിക്കാം ഇപ്പം ഇത് മാത്രം മതി ആ ആ വരും